ഡോട്ട് ഹോം റെസ്റ്റോറൻ്റല്ലേ എനിക്ക് ഫുഡ്ഡ് ഐറ്റംസ് വേണ്ടീട്ടാണ് നെയ് ചോറും ബീഫും ഉണ്ടോ ആ ഞാൻ നെയ് ചോറും ബീഫ് ഡെലിവറി ഉണ്ടായിരുന്നോ അവിടെ

ആ ഞാനാണെ ഇപ്പോൾ പുണ്ണലാണ് ആ അതെ ആ ആ ആ വെ ഉച്ച ആരിക്കുമ്പം എത്തുമായിരിക്കുംക്കും അല്ലേ ഇത് ഈ റെസ്റ്റോറെന്റ് എവിടെയാരുന്നു നമുക്കിപ്പോൾ ഒരാക്കൊള്ള ഫുഡ്ഡ് മതി ഒരാക്കൊള്ള ഫുഡ്ഡ് മതി ആ അതെ ഓ വേണ്ട വേണ്ട ഞങ്ങക്ക് ബീഫും നമുക്ക് ബീഫും നെയ് ചോറും തന്നെ മതി ആ ആ അതെ അതെ

നമക്ക് റോസ്റ്റാണ് ബീഫ് റോസ്റ്റ് മതി ആ ആ അതെ അ ആ ആയിക്കോട്ടെ ആ ഡെലിവെറി ചാർജൊക്കെയുണ്ടോ ആ ആ ഹാ ആ ആ ആ ആ ആയിക്കോട്ടെ ആ നമ്മക്കൊരുച്ച ആകുമ്പോഴ്ത്തേക്ക് വെച്ചിട്ടാണെ ആ അ ആ അതിന്റുള്ളിലായി കൊണ്ടുവന്നാൽ മതി

വേണ്ട വേണ്ട ഇത് വേണ്ട വേണ്ട വേണ്ട അ ആ ഇത് മാത്രം മതി ആ അവരിക്കഞ്ച് ആ ആയിക്കോട്ടെ ആ ആ ആ ബാക്കി ഡീറ്റെയിൽസ് ഞാനങ്ങനെ പറയാം ആ ഓ ആയിക്കോട്ടെ